ഹലോ ഞാൻ രണ്ടാഴ്ച്ചയായി ഗ്യാസിന് ബുക്ക് ചെയ്തിട്ട് എനിക്ക് ഇതുവരെയായിട്ടും ഗ്യാസ് കിട്ടിയിട്ടില്ല നിങ്ങൾ ഇതിൽ എന്തു നടപടിയാണ് സ്വീകരിക്കുക എനിക്ക് നമ്മുടെ വീട്ടിൽ വളരെയധികം അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഗ്യാസ് എന്നു പറയുന്നത് ഇന്ന് നമുക്ക് ഇപ്പം നമുക്ക് വിറകടുപ്പൊന്നമില്ല നമുക്ക് ഗ്യാസിലാണ് നമ്മുടെ എല്ലാ ഗ്യാസ് സ്റ്റൗവിലാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിങ്ങനെ ഗ്യാസ് സിലിണ്ടർ നമ്മൾ വിളിച്ചു പറഞ്ഞിട്ട് ഇത്രയും ദിവസം മുടങ്ങിയാൽ നമ്മൾ എങ്ങനെ ഭക്ഷണം പാകം ചെയ്യും വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളതാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഗ്യാസ് നമുക്ക് തരേണ്ടതാണ് ഇത്രയും വൈകിയതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട് ദേഷ്യവും ഉണ്ട് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു നിങ്ങളുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ എനിക്ക് ഞാൻ നേരിട്ടതിനെ നിങ്ങൾ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവരോട് പറയുക എത്രയും പെട്ടെന്ന് ഗ്യാസ് ഞങ്ങൾക്ക് കൊണ്ടുതരിക എന്നു പറയുക അല്ലാത്തപക്ഷം ഞങ്ങൾ ഈ ഗ്യാസ് സിലിണ്ടർ നിങ്ങളുടെ ഏജൻസിയിൽ നിന്നും വേറെ ഏജൻസിയിലോട്ട് നമ്മൾ ഗ്യാസിൻ്റെ ഇത് മാറ്റുന്നതായിരിക്കും